ഞാൻ കുറേ കാലമായി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ഗെയിമാണ് ടെംപിൾ റൺ ടു അതിൽ ഒരു പയ്യൻ അല്ലങ്കിൽ ഒരു കൊച്ചു കുട്ടി ഓടുകയായിരിക്കും ബേക്കിൽ നമ്മൾ എവിടെയെങ്കിലും തട്ടിയാൽ ബാക്കിൽ ഒരു ഡ്രാഗൺ നമ്മളെ പിടിക്കാൻ വരും ആ ഗെയിമെന്ന് പറയണത് നമ്മളൊക്കെ ചെറു ഞാൻ ഏകദേശം അഞ്ച് അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ മുതൽ കളിക്കുന്ന ഗെയിമാണ് ടൈം പാസ്സ് എക്സ് നമുക്ക് ഒരു ടൈം പാസ്സിന് വേണ്ടി കളിക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഗെയിമാണ് ടെംപിൾ റൺ എന്നു പറയുന്നത് പിന്നീട് ഞാൻ ഏറ്റവും അധികം കളിച്ച ഗെയിമാണ് ഇ ഫുട്ബോൾ പ്രൊ എവല്യൂഷൻ സോക്കർ അല്ലെങ്കിൽ പെസ് എന്നു പറയും ഈ ഗൈയിം എന്ന് പറയുന്നത് ഫുട്ബോൾ ഗെയിമാണ് നമുക്ക് പ്ലയേഴ്സിനെ പർച്ചേസ് ചെയ്യുകയും നമുക്കത്തിലൂടെ കോയിൻസ് കിട്ടുകയും ആ കോയിൻസ് വച്ച് നമുക്ക് പലതലത്തിലുള്ള നമ്മുടെ പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വച്ചാൽ കുട്ടികൾ അതിന് അഡിക്റ്റാകും പക്ഷെ എൻ്റെ ഞാനൊരു കൺട്രോൾ വച്ച് ഇത്ര ദിവസത്തിൽ ഇത്ര വീക്കിൽ അല്ലെങ്കിൽ ഇത്ര ഡെയ്സിൽ ഇത്ര ഗെയിം ഇത്ര മാച്ചസ് ഓൾ മാത്രമേ കളിക്കൂ എന്നാണ് പല പല ടൂർണമെന്റുകളും ഒക്കെ നമുക്കിതിൽ കളിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഫ്രണ്ടുമായിട്ടും പല തരത്തിൽ ആ ഗെയിമുകൾ കളിക്കാൻ പറ്റും നമുക്ക് ഫ്രണ്ടുമായി മാച്ച് വച്ച് ടൈം കൂട്ടാം ബോളുകൾ മാറ്റാം അതിലൂടെ നമുക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് നമുക്കൊരു ഒരു ഒരു സന്തോഷം നൽകുന്ന ഒരു ഗെയിമാണ് ഈ പെസ് അല്ലെങ്കിൽ പ്രൊ എവല്യൂഷൻ സോക്കർ അല്ലെങ്കിൽ ഇ ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ ഇ ഫുട്ബോൾ എന്ന് പറയുന്നത് ഈ പ്രൊ എവല്യൂഷൻ സോക്കർ ഈ അഞ്ച് കൊല്ലം മുൻപേ ഇവര് തുടങ്ങിയ ഗെയിമായിരുന്നു പ്രൊ എവല്യൂഷൻ സോക്കർ ടു തൗസന്റ് ട്വൽവ് ടു തൗസന്റ് ടെൻ മുതൽ ഈ ഗെയിമുള്ളതാണ് പിന്നീട് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുതൽ അത് ഇ ഫുട്ബോൾ ആയി മാറുകയും പല യൂസേഴ്സ് അതിൽ നിന്ന് പിൻമാറുകയും ചെയ്തു ഇപ്പോൾ ഇപ്പോൾ കാരണം പ്രൊ എവല്യൂഷൻ സോക്കറില് കിട്ടിയിരുന്ന ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഈ ഇ ഫുഡ്ബോളിൽ നമുക്ക് കിട്ടാതെ ആയി ഇ ഫുട്ബോൾ പല തരം അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും പക്ഷെ പഴയ ഒരു ഇപ്പോൾ ഗെയിമിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ കറക്കി ഒരു പ്ലയറെ എടുക്കുന്ന രീതി അത് അവര് മാറ്റി അവർക്ക് ഇഷ്ടമുള്ള പ്ലയറെ തരിക അങ്ങനെയെന്നുള്ള രീതിയായി അത് പലർക്കും ഏക്സപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല പിന്നീട് എന്താ ഒരു ഗെയിം കളിച്ചതെന്ന് പറയുന്നത് ബി ജി എം എ കളിച്ചിട്ടുണ്ട് അതുപോലെ ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ അഡിക്റ്റ് ആകുന്ന ഗെയിമാണ് പക്ഷെ നമ്മൾ ഒരു രീതിക്ക് കൊണ്ടുപോയാൽ ഇതൊക്കെ നമ്മൾക്ക് നല്ലൊരു രസകരമായ ഒരു ഗെയിമാവും പിന്നെ കമ്പ്യൂട്ടറിൽ ഞാൻ ഫിഫ കളിച്ചിട്ടുണ്ട് അതുപോലെ ഗ്രാന്റ് തെഫ്റ്റ് ഓട്ടോ ജി ടി എ വൈസ് സിറ്റി അതൊക്കെ രസകരമായ രീതിയിൽ കളിക്കാവുന്ന ഗെയിമുകളാണ് പലരും പല അർഥത്തിലാണ് ഗെയിമുകൾ കാണുന്നത് എന്നുള്ള ഒരു മോശം കാര്യമാണ് പക്ഷെ ഒരു വ്യത്യസ്തതരമായ എക്സ്പീരിയൻസ് നമുക്ക് ആ ഗെയിമിൽ നിന്ന് കിട്ടും